പ്രിയമുള്ളവരേ പിന്നെ എന്നാണ് ഞാൻ ഒരാഴ്ച മുമ്പ് ആമസോണിൽ കൂടി ഒരു എൽ ജിയുടെ ഒരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങിക്കുകയുണ്ടായി അത് പരസ്യം കണ്ടും അതിൻ്റെ റിവ്യൂ ഒക്കെ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചതാണ് അത് അവരുടെ ആ ഒരു ഓഫറും എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു ഇരുപത്തൊൻപത് സംതിങ്ങിന് എനിക്ക് കിട്ടി പക്ഷേ അവർ ഡെലിവറി ചെയ്തു അതെല്ലാം ഞാൻ അവിടുത്തെ കസ്റ്റമർ കെയറെ വിളിച്ചു അവരുടെ സർവീസ് അവിടുന്ന് ഉള്ളവർ അത് വന്ന് വാഷിംഗ് മെഷീൻ എല്ലാം നല്ല രീതിയിൾ പ്രോപ്പർ ആയിട്ടെല്ലാം വെച്ച് തന്നു അവരെ സർവീസിങ്ങ് എല്ലാം നല്ലതായിരുന്നു പക്ഷേ ആദ്യത്തെ രണ്ട് ദിവസം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് ആ വാഷിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കാൻ എല്ലാം സാധിച്ചു പക്ഷേ കഴിഞ്ഞ് മൂന്നാമത് ദിവസം തുണി വാഷ് ചെയ്തില്ലായിരുന്നു നാലാമത്തെ ദിവസം വാഷ് ചെയ്യാനായിട്ട് തുണി ഇട്ടിട്ട് പക്ഷേ എന്തോ അത് സ്റ്റക്ക് ആയി നിൽക്കുന്നു സ്റ്റക്ക് ആയി നിൽക്കുന്നു കറങ്ങുന്നില്ല അന്നേരം എൻ്റെ ഒരു സംശയത്തിൽ തുണിയുടെ ക്വാണ്ടിറ്റി കൂടിയതു കൊണ്ടാണോ എന്നുള്ള ഒരു സംശയത്തിൽ ഞാൻ കുറച്ചു തുണികൾ അതിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് വീണ്ടും ഞാൻ ഓൺ ആക്കിയിട്ടും അതുപോലെ തന്നെ ആ രീതിയിൽ തന്നെ അത് നിൽക്കുകയാണ് അതങ്ങോട്ട് ഒരു രണ്ട് കറക്കം കറങ്ങും പിന്നെ അതങ്ങ് നിൽക്കും പിന്നെ അതങ്ങ് വാഷ് ചെയ്യുന്നില്ല വെള്ളമാണെങ്കിലും ഇത്തിരി അങ്ങോട്ട് വീഴും പിന്നെ എന്തോ സംഭവിച്ചതെന്ന് അറിയില്ല അതാണ് അതിൻ്റെ ഒരു എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അതാണ് ഇനിയിപ്പം അത് അവരെ വിളിച്ച് സർവീസ് ചെയ്യണം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആണെങ്കിലും നാളെ ഒരിക്കൽ ഇങ്ങനെ ഒരു ഐറ്റം വാങ്ങിക്കുമ്പോൾ കഴിവതും നല്ല രീതിയിൽ ശ്രദ്ധയോടെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക